അങ്ങനെ പറഞ്ഞാൽ നമ്മളെന്ത് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് വീട്ടുകാരുടെയും സന്തോഷം നമ്മള് ഇപ്പോൾ ഡാൻസ് പഠിക്കണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഡാൻസ് പഠിപ്പിക്കാൻ തന്നെ അവര് വിടും പിന്നേന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടുകളും അവരടുത്ത് പൈസയുണ്ടോ എന്നൊക്കെ നമ്മള് നോക്കുകയും വേണം പിന്നേന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പോൾ ഒരു ചിത്രം വരാക്കാനോ പാട്ട് പാടാന് ഒക്കെ കഴിവുള്ളോരൊക്കെ ഒരുപാട് ഉണ്ടാവും അവർക്കൊക്കെ അവരെ ഒക്കെ ഈ മുസ് മാതാപിതാക്കൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പ്രയോജ പ്രജോദനം നൽകി അവരെ മുമ്പോട്ട് കൊണ്ട് വരികയാണ് ചെയ്യുന്നത് പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്ത കുറവൊന്നും അവരെ അറിയിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലൂടെ അവര് പഠിച്ച് വലുതാവട്ടെ അവൾ അതിൽ അവര് അതില് വിജയം കൈവരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീട്ടുകാര് നമ്മളെ എന്താ മുന്നോട്ട് കൊണ്ട് പോകുന്നത് എന്തിനാണെങ്കിലും നമ്മക്കിപ്പോൾ ഒരു ടൂറ് പോകുന്നതിനാണെങ്കിലും ഈ ചില ആളുകള് കുട്ടികളെ വിടാറില്ല എന്തെങ്കിലും പേടിയോ പിന്നെ പൈസേൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊൺ വിടാറില്ല എന്നാൽ ഇങ്ങനേ കുട്ടികളാഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് സാധിച്ച് കൊടുക്കാനൊക്കെ വീട്ടുകാര് ന് ശ്രമിക്കാറുണ്ട്